കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട് വരുന്നതാണ് നമ്മുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെക്കുറിച്ച് ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ കാല നെല്ലറയയ കുട്ടനാട്ടിൽ നെൽപ്പുരകളുണ്ടായിരുന്നു ശ്രീ മൂലം തിരുനാള് മഹാരാജാവ് താമസിച്ചിരുന്ന മങ്കൊമ്പിലെ കൊട്ടാരവും അതിന്റെ വീടുകളും ഞാന് സന്ദര്ശിച്ചിട്ടുണ്ട് ശ്രീ മൂലം തിരുനാൾ സ്ഥാപിച്ച ഓണത്തൊട് അനുബന്ധിച്ച് സ്ഥാപിച്ച ശ്രീ മൂലം വളളം കളിയാണ് ചമ്പക്കൊളം കുട്ടനാട്ടിലെ ചമ്പക്കൊളം എന്ന രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി അത് മാപ്ലശ്ശേരി കടവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചമ്പക്കൊളം ചമ്പക്കൊളത്തിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന കല്ലൂർക്കാട് പള്ളി വരെയാണ് അവിടെന്ന് നായിട്ട് വിളക്ക് തെളിച്ച് കൊണ്ട് പോകുന്നത് മാപ്പിളശ്ശേരി കുടപ്പുര പുരാതന പുരാതന കുടുംബമായ മാപ്ലശ്ശേരി കുടുംബത്തിൽ നിന്നാണ് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നതൊരു കാര്യം കൂടിയാണത് കുട്ട ഞാനൊരു കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നതായത് കൊണ്ട് അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്